എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാല് ആറ് രണ്ടായിരത്തി ഇരുപത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്ത്രണ്ടേ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്